ഇന്ത്യയിലിപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്നൊരു പ്രധാന വെല്ലുവിളിയൊക്കെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കൂടുതലും എന്താ പറയുക എല്ലാവർക്കും വിദ്യാഭ്യാസം നേടി കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടിപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു ഇതായിട്ട് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോളുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി വിദ്യാഭ്യാസം ഇതാക്കി കൊടുക്കുമ്പോൾ പകുതി കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനോട് ഒരു താത്പര്യമില്ലാത്ത രീതിയിലുള്ള ഇതാണ് കാരണം ആദിവാസി കുട്ടികളൊക്കെ സ്കൂളിൽ വരാനുള്ള ഇതിന് എന്താ പറയുക ഒരു താത്പര്യമില്ലാത്ത രീതിയിലൊക്കെയാണ് കൂടുതലും കണ്ട് വരുന്നത് അപ്പം അത് ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേരിടുന്നൊരു വെല്ലുവിളി വലിയ തന്നെ ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ആദിവാസികളെന്നൊക്കെ പറയുമ്പോൾ അവർ ഇടക്ക് സ്കൂളിൽ വന്നാൽ വന്നു അങ്ങനെയൊക്കെയാണ് അപ്പം അവരെയും കൂടി നമുക്ക് എന്താ പറയുക ടോട്ടലായിട്ട് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പം അതിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇവരെപ്പോലുള്ളവർ ഉയർന്ന് വരാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഗ്രാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് അരി കാര്യങ്ങളങ്ങനെയൊക്കെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇവർ സ്കൂളിൽ വരികയും പിന്നെ വരാണ്ടിരിക്കുകയൊക്കെയാണ് സാധാരണ ചെയുന്നത് അപ്പം അതൊക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്നൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്